വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ വിനോദസഞ്ചാര വ്യവസായത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഉദാഹരണത്തിനായി ഡാൻസ് അതുപോലെത്തന്നെ പാട്ട് നാടകം സിനിമ കോൺസേട്സ് അതുപോലെത്തന്നെ ഗെയിമുകൾ റേഡിയോയും ടെലിവിഷനും ഏത് തരത്ത് ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എല്ലാ മേഖലകളിലും അവയുടെ വികാസങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് വന്നത് എന്നത് എന്നത് കാണാൻ വേണ്ടി പറ്റും അതുപോലെത്തന്നെ രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ ചില വിനോദ രൂപങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായുമുള്ള മെയിൻ സാധനമാണ് ഡാൻസ് എന്ന് പറയുന്നത് എല്ലാ പ്രായക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നൃത്തച്ചുവടുകൾ കണ്ടിരിക്കാൻ നൃത്തച്ചുവടുകൾ ആസ്വദിക്കുക എന്നുള്ളത് അതുപോലെത്തന്നെ പാട്ട് കേൾക്കുക പാട്ടാസ്വദിക്കുക എന്നുള്ളതും എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പലതരത്തിലുള്ള പാട്ടുകൾ ഉള്ളത് കൊണ്ടുതന്നെ പല ടൈപ്പുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ആസ്വദിക്കാനും കഴിയും അതുപോലെത്തന്നെ വേറൊരു വിഭാഗത്തിൽ പെടുന്നതാണ് നാടകങ്ങളെന്ന് പറയുന്നത് നാടകങ്ങൾ കൂടുതലായും പഴയ ഒരു കലാരീതിയും കാര്യങ്ങളും ആണെങ്കിൽപ്പോലും ആളുകളിപ്പോഴും ഡ്രാമയെ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളെ കൂടുതലായും നാടകങ്ങൾ പഠിപ്പിക്കുകയും അതുപോലെത്തന്നെ നാടകങ്ങൾ കളിയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ വേറൊരു വിനോദരൂപമാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ ഇഷ്ടപ്പെടാത്ത മലയാളികൾ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെയധികം കുറവാണെന്ന് നമ്മുടെ ഈ ലോകത്തെന്ന് തന്നെ വേണം പറയുവാൻ കാരണം ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും അതും വിവിധ ഭാഷകളിലുള്ള സിനിമകളും വിവിധ രീതിയിലുള്ള സിനിമകലും വിവിധ ദൈർഘ്യമുള്ള സിനിമകളും നമുക്ക് കണ്ടെത്താനായി സാധിക്കും അതുപോലെത്തന്നെ ഈ ഇടയായി പുതിയ തലമുറയിൽ ഇച്ചിരി പ്രചാരത്തിലായ ഒരു കാര്യമാണ് കോൺസേട്സ് കോൺസേട്സെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മെയ്നായിട്ടും ഒരു ബാൻഡ് അല്ലെങ്കിലൊരു കൂട്ടം ആളുകൾ ചേർന്ന് മ്യൂസിക് പരിപാടി അല്ലെങ്കിൽ ഡാൻസ് പരിപാടികൾ പ്രദർശിപ്പിക്കുന്നതാണ് അതുപോലെത്തന്നെ മറ്റൊരു കാര്യമാണ് ഗെയിംസെന്ന് പറയുന്നത് കുട്ടികളിലാണെങ്കിലും ശരി അതുപോലെത്തന്നെ പ്രായമായവരിലാണെങ്കിലും ശരി വിനോദവേളകൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന നിമിഷങ്ങൾ ആസ്വാദ്യകരവും സന്തോഷപരവുമാക്കുവാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ഗെയിംസ് അവർ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ പണ്ട് കാലത്തും ഇന്നും വളരെയധികം പ്രചാരത്തിൽ നിൽക്കുന്ന ഒന്നാണ് ടെലിവിഷൻ അല്ലെങ്കിൽ ടി വി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അതിൽ പ്രേക്ഷണം ചെയ്യുന്ന പരിപാടികളുടെ എണ്ണം കുറവായിരുന്നു എങ്കിൽപ്പോലും അത് കാണാനുള്ള ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നാലിന്നത്തെ കാലത്ത് വിവിധതരത്തിലുള്ള പരിപാടികൾ വിവിധ പ്രായക്കാർക്കായി അത് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ ചാനലുകൾ അതുപോലെത്തന്നെ പാട്ടുകൾ ഡാൻസുകളൊക്കെ കിട്ടും പ്രായമായവരെ നോക്കുകയാണെങ്കിൽ അവർക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായ ടെലിവിഷൻ ചാനലുകൾ കാണാൻ പറ്റും യൗവ്വനക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകൾ അതുപോലെത്തന്നെ പാട്ടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സീരിയൽ അതുപോലെത്തന്നെ ആൾക്കാരിഷ്ടപ്പെടുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ടീ വിയിൽ നിന്നും കിട്ടുന്നുണ്ട് അതുപോലെത്തന്നെ പണ്ട് കാലത്ത് വളരെ പ്രചാരത്തിൽ നിന്നതും എന്നാലിന്ന് അത്ര പ്രചാരത്തിൽ ഇല്ലാത്തതുമായൊരു കാര്യമാണ് റേഡിയോ എന്ന് പറയുന്നത് ആളുകളെ വിനോദത്തിലാക്കുന്നതിനും വിവരം നൽകുന്നതിനും വളരെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രക്രിയയാണ് റേഡിയോ എന്ന് പറയുന്നത് എന്നാലിന്ന് റേഡിയോയുടെ പ്രചാരം വളരെയധികം കുറഞ്ഞിട്ട് കുറഞ്ഞ് വരികയാണ് എന്നതാണ് വളരെയധികം സത്യം ഏത് തരത്തിലുള്ള ഉള്ളടക്കങ്ങളാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല രീതിയിലുള്ള ഉള്ളടക്കങ്ങളാണ് ആവശ്യപ്പെടുന്നതും അവർക്കിഷ്ടപ്പെടുന്നതും